ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉള്ളൊരു ആരോഗ്യ സംരക്ഷണമൊക്കെയാണ് ഇപ്പോൾ നമ്മൾക്ക് പല രീതിയിലുള്ള ആരോഗ്യ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണമെന്തെന്നു വച്ചു കഴിഞ്ഞാൽ നമ്മുടെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മടെ നാട്ടിൽ തന്നെ നിപ്പ വൈറസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടു പോയതേ ഉള്ളൂ അപ്പോൾ മിംസിലൊക്കെയാണ് കൂടുതലായിട്ടും കുട്ടികളും കാര്യങ്ങളൊക്കെ കിടന്നത് അവിടെ നല്ല രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ അഡ്മിറ്റാക്കിയത് അവിടെ നമ്മൾക്ക് വെൻറിലേറ്റർ സൗകര്യം ഇപ്പോൾ എന്തെങ്കിലും ശസ്ത്രക്രിയ വേണമെങ്കിൽ അതിനുള്ള സൗകര്യം എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ മിംസിലും മെഡിക്കൽ കോളേജിലൊക്കെ അവൈലബിളാണ് അപ്പോൾ നമ്മൾക്ക് ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ നമ്മളെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ആരോഗ്യ സംരക്ഷണം എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ക്ലിനിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യണെങ്കിൽ നമുക്ക് കേരളത്തിലെവിടെ വേണമെങ്കിലും പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും